ഇപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൽ മാത്രമല്ല മൊത്തത്തിൽ വലിയ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ബഫർ സോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് കരണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതി പതിനേഴ് പതിനാറ് ആ വർഷങ്ങളിൽ ഒരു കരട് വിജ്ഞാപനം ഇറക്കിട്ടുണ്ടായിരുന്നു അതായത് കസ്തൂരി രംഗൻ എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു റിപ്പോർട്ട് നല്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈക്കോടതിയിൽ അല്ല സുപ്രീം കോടതിയിൽ അപ്പം സുപ്രീം കോടതിയിൽ നല്കിയ ആ റിപ്പോർട്ട് പ്രകാരം അതായത് എങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ കാട് ഉള്ള പ്രദേശങ്ങളെല്ലാം അതായത് കടുവ സങ്കേതം അങ്ങനെ ആക്കി മാറ്റണംന്ന് പറഞ്ഞിട്ട് കടുവ സങ്കേതം ആക്കുവാണെങ്കിൽ നമുക്കൊന്നും വീടിന് ഒരേഴു മണി ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാനോ വണ്ടി വണ്ടിയെടുത്ത് പോവാനോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ പിന്നെ വീടിന് പച്ചക്കളർ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ മരം മുറിക്കാൻ പാടില്ല മണ്ണെടുക്കാൻ പാടില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊരു റിപ്പോർട്ട് അവിടെ നല്കിയത് കൊണ്ട് ഇപ്പോൾ അത് കരട് വിജ്ഞാപനം ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഫർ സോണ് ആക്കണംന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സരക്കാരാണ് കൂടുതലായിട്ടും അവരെ അതിനു വേണ്ടി എതിർത്തത് പിന്നെ നിയമം വന്നിട്ടില്ല ഇതുവരെ അത് അങ്ങനെ വരുംന്ന് ചിലപ്പം വരാനും സാധ്യതയുണ്ട്